ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തിരണ്ട് മെയ് പന്ത്രണ്ട് ആയിരത്തിത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഒന്ന് നവംബർ പതിനേഴ് രണ്ടായിരത്തി ഒന്ന്